ഇപ്പം സ്റ്റാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിൽ ഉള്ള സ്റ്റാമ്പുകൾ ആണ് കൂടുതലായിട്ടും ഞാൻ കളക്റ്റ് ചെയ്തത് പഴയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുൻപുള്ള സ്റ്റാമ്പുകൾ അതായത് പല പല സ്റ്റാമ്പുകൾ ഉണ്ട് അപ്പോൾ അതെല്ലാം കളക്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉള്ള മൂല്യമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അത് എല്ലാവർക്കും കാണിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എല്ലാം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ ഇതുവരെ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പം അതെല്ലാം കാണിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ നാണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അണ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളത് അണ അണ എന്ന് പറഞ്ഞിട്ടുള്ളേ പൈസകൾ ആണ് അപ്പം അത് ശേഖരിക്കാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷമാണ് അതൊന്നും ഇപ്പം കിട്ടാനും കൂടി ഇല്ല അപ്പം അതൊക്കെ ഞാൻ ഇനി ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ അധികം സാധിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ എനിക്ക് ഒരു മൂല്യമായിട്ടാണ് തോന്നിയത് പിന്നെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ട് ഇത് ഇപ്പോൾ എത്ര പൈസ തരാം എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കരണം എന്ത് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അത് വലിയ മൂല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്